ഞാൻ ലഘു ഭക്ഷണം ആയിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചാ ഇതുണ്ടാക്കാറുണ്ട് അരിപ്പൊടിയില്ലേ ആ പച്ചരി പച്ചരി വെള്ളത്തിലിട്ടിട്ട് പിന്നെ ഇലയട പച്ചരി വെള്ളത്തിലിടും പച്ചരി വെള്ളത്തിലിട്ടിട്ട് ഞാൻ അത് പൊടിക്കും നല്ല നൈസ് ആയിട്ട് പൊടിച്ച് വറുക്കും നന്നായിട്ട് വറുക്കും വറുത്ത് കഴിഞ്ഞിട്ട് ചൂടുവെള്ളം വച്ച് ചൂടുവെള്ളം ഒഴിച്ച് നന്നായി കുഴച്ചെടുത്തിട്ട് തേങ്ങ പഞ്ചസാര ജീരകം നന്നായിട്ട് മാറ്റി വെയ്ക്കുക ഒരു പാത്രത്തിൽ എന്നിട്ട് ഇളക്കി വെയ്ക്കുക എന്നിട്ട് ഇത് കുഴച്ച് കഴിയുമ്പം പിന്നെ നമ്മുടെ വാഴയിലയില്ലേ വാഴയിലയിൽ എടുത്തിട്ട് പിന്നെ നന്നായി പരത്തിയിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് പിന്നെ തേങ്ങയും പഞ്ചസാരയും ഒക്കെ ഉള്ള ആ മിശ്രിതം ഒരു ഭാഗത്ത് വയ്ക്കുക എന്നിട്ട് മറ്റേ ഭാഗം അടച്ചിട്ട് ഇഡ്ലി ചെമ്പിൽ ആവിക്ക് വെച്ച് വേവിക്കും നല്ല ഒരു നല്ല ടേസ്റ്റുള്ള ഒരു ലഘു ഭക്ഷണം ആണ് താനും പിന്നെ നല്ല ടേസ്റ്റുള്ള ഒരു പലഹാരവും ആണ് മക്കക്കും പ്രായമായ എല്ലാവർക്കും ഇഷ്ട എല്ലാ പ്രായക്കാർക്കും ഇഷ്ട്മായിട്ടുള്ള ഒരു പലഹാരമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് ഞാൻ അതാണ് ഉണ്ടാക്കാറ്